മലയാള ഭാഷ ഉല്ഭവിച്ചത് തമിഴില് നിന്നാണ് എന്ന് ഒരു ചരിത്രമുണ്ട് മലയാള ഭാഷയെ മലയാള മലയാളത്തിലെ പല വാക്കുകളും തമിഴില് നിന്നാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് തമിഴില് നിന്നാണ് മലയാള ഭാഷ ഉരുത്തിരിഞ്ഞത് എന്ന് നമ്മള് മനസ്സിലാക്കുന്നത് ഒരു മലയാളിക്ക് വേറെ ഏതു ഭാഷയും ഏ ഏതു ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റും അതേസമയം ഒരു തമിഴ് സംസാരിക്കുന്നവര്ക്കോ അല്ലെങ്കില് കന്നഡ സംസാരിക്കുന്നവര്ക്കോ അല്ലെങ്കില് വേറെ ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നവര്ക്ക് മലയാള സം ഭാഷയെ എളുപ്പത്തില് മനസ്സിലാക്കാനോ അതിനെ വശീകരിക്കാനോ അതിനെ സ്വാധീനിക്കാനോ സാധ്യമല്ല അതെ സമയം മലയാളത്തില് വരാ മലയാളത്തിലെ മലയാളികള്ക്ക് അല്ലെങ്കില് മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നവര്ക്ക് ഏതുഭാഷയും എല്ലാവിധത്തിലും മനസ്സിലാക്കാനും അത് പെട്ടന്ന് സ്വീകരിക്കാനും സാധിക്കുന്നുണ്ട്